ഞങ്ങളുടെ ഗ്രാമത്തിലെ യുവാക്കള് ഏറ്റവും കൂടുതല് തെരഞ്ഞെടുക്കുന്ന സ്ഥലം ബാംഗ്ലൂര് ആണ് ഇത് കൂടുതല് കുട്ടികളെ ഐടി ഫീല്ഡിലേക്ക് ആകര്ഷിക്കുന്നു ധാരാളം കുട്ടികള് ഇന്ന് ഐടി ഫീല്ഡിലാണ് വര്ക്ക് ചെയ്യുന്നത് ഡിഗ്രിയോ അല്ലെങ്കില് പ്ലസ്ടുവോ കഴിഞ്ഞ ഉടനെ അവര് ഏതെങ്കിലും കമ്പ്യുട്ടര് കോഴ്സ് തെരഞ്ഞെടുക്കുന്നു അതിന് ശേഷം ഐടി മേഖലയിലേക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു ഐടി മേഖലയില് ജോലി കിട്ടുവാന് ഇപ്പോള് ഏറ്റവും കൂടുതല് സാധ്യതയുള്ള കാലമാണ് അതുകൊണ്ടു തന്നെ അതില് ക്ക് കുടിയേറാനും ആ ഐടി മേഖലയിലേക്ക് കുടിയേറാനും മാത്രമല്ല അത് വര്ക്ക് അറ്റ് ഹോമ്മ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ് സാധാരണക്കാര്ക്ക് പോലും ഏറ്റവും എളുപ്പത്തില് പഠിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഫീല്ഡ് തന്നെയാണ് ഐടി മേഖല അതുകൊണ്ട് തന്നെ എല്ലാ യുവാക്കളും വളരെ വേഗത്തില് ജോലിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നതും ഐടി മേഖലയാണ് ഐടി മേഖയലില് വര്ക്ക് ചെയ്യുമ്പോള് അവരുടെ ജോലി സാധ്യതകള് കൂടി വര്ദ്ധിക്കുകയാണ് ചെയ്യുന്നത്